നമ്മുടെ പാലക്കാടെന്ന് പറയുമ്പോൾ ഒരു ഗ്രാമ പ്രദേശമായതുകൊണ്ട് അതിൽ പല തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങൾ ഇപ്പോൾ വനങ്ങളായാലും ശരി ജല സ്രോതസ്സുകളായാലും ശരി അല്ലെങ്കിൽ ധാതു അങ്ങനത്തെ ശേഖരങ്ങളാണെങ്കിലും ശരി അങ്ങന പല രീതിയിൽ നമുക്ക് സമ്പുഷ്ടമായ ഒരു ഗ്രാമ പ്രദേശം തന്നെയാണെന്നു പറയാൻ പറ്റും ഇപ്പോൾ നമുക്ക് വനം നോക്കണമെന്ന് പറയുമ്പോൾ സയലൻറ് വാലി ഉണ്ട് പിന്നെ നമ്മുടെ സയലൻറ് വാലി വന മേഖലയുണ്ട് നെല്ലിയാമ്പതി ഉണ്ട് പിന്നെ എന്താ പറയുക അയ്യർമല പിന്നെ അങ്ങനെ ഒട്ടനവധി മല ആനക്കല്ല് ഇങ്ങനത്തെ പല പല ഏരിയകളിൽ നമുക്ക് മലകൾ കാണാൻ പറ്റും അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മരങ്ങളും തെങ്ങ് എന്താ പറയുക വിഭവ സമൃദ്ധമായ ഈ തേയില അങ്ങനത്തെ ഐറ്റംസ് പിന്നെന്താണ് നമുക്കവിടെ കാണാൻ പറ്റുക ഫ്രൂട്ട്സുണ്ടാകും അങ്ങന പലരീതിയിലുള്ള കാട്ട്പഴങ്ങളാണ് രീതിയിലുള്ള സാധനങ്ങൾ നമുക്കവിടത്തെ ഏരിയിൽ കാണാൻ പറ്റും കൂടുതലും മറ്റപ്പാട് രീതി മറ്റ് മേഖലകളിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് ചേരുമ്പഴമെന്ന് പറയുന്ന സാധനം അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് മനുഷ്യർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതും ആവശ്യമായിട്ടുള്ളതുമായ ഒരു സംഭവമാണ് പിന്നെ നമുക്ക് നോക്കണമെന്ന് പറയുമ്പോൾ ജല സ്രോതസ്സുകൾ നോക്കണമെന്ന് പറയുമ്പോൾ മലമ്പുഴ ഡാം നമുക്ക് ഡാം ഒട്ടനവധി പുഴകൾ നമുക്ക് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കുന്ദി പുഴയുണ്ട് ദൂത പുഴയുണ്ട് ഭാരത പുഴയുണ്ട് പിന്നെ അതിനൊക്കെ ഭാരത പുഴയുടെ കൈ കൈവരികൾ കണ്ണാടി പുഴ മറ്റെ അങ്ങനത്തെ ഇഷ്ടംപോലെ നമുക്ക് അതും കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ല നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ മലിനീകരണം നമ്മുടെ ബാക്കിയുള്ള ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ മലിനീകരണം കുറവാണെന്ന് പറയാൻ പറ്റും എന്നാലും നമുക്ക് കുറെ അധികം ഇപ്പോൾ നമ്മുടെ ഫാം വെയ്സ്റ്റുകൾ അങ്ങനത്തെ വെയ്സ്റ്റുകൾ പിന്നെ ഇലക്ട്രോണിക് വെയ്സ്റ്റുകൾ അങ്ങനത്തെ കുറെ അധികം വെയ്സ്റ്റുകൾ ഇപ്പോൾ അതിൽ നിന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് അത് കളയാൻ പറ്റുന്നില്ല അങ്ങനത്തെ സാഹചര്യങ്ങളായതു കൊണ്ട് ഒരു അവർ പല സ്ഥലങ്ങളിലും ഉപേക്ഷിച്ചിട്ട് പോവ്വാണ് അത് നമുക്ക് പാരിസ്ഥിതികമായിട്ട് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് അതേ എന്താ പറയുക ഈ പേപ്പട്ടികൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെത്തന്നെയാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇപ്പം നേരിടുന്ന പ്രശ്നം കാര്യങ്ങളും